അപ്പോൾ മാധ്യമങ്ങളിൽനിന്ന് എന്തായാലും എല്ലാത്തിലും ഇംഗ്ലീഷും വേണം അതുപോലെ മലയാളവും വേണം കൂടുതൽ പേർക്ക് മലയാളം വായിക്കാനാണ് അറിയുക മനസ്സിലാക്കാനൊക്കെ മലയാളം ആണ് ഏറ്റവും നല്ലത് വിദ്യാഭ്യാസങ്ങളിലും എല്ലാ സ്ഥലത്തും മലയാളം ഇല്ലാണ്ട് നടക്കില്ല ഇംഗ്ലീഷാണെങ്കിലും മലയാളം ഇല്ലാണ്ട് നടക്കില്ല അർഥങ്ങളിലൊക്കെ മലയാളത്തിലെഴുതിയാലെ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെയൊക്കെയാണ് മലയാളം വേണ്ടത് നമുക്ക് മലയാളം ഇല്ലാണ്ട് ഒരു സ്ഥലത്തും പറ്റില്ല അതുപോലെ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്കൊക്കെ മലയാളമേ പറ്റുള്ളൂ അതുകൊണ്ട് അതുപോലെ തന്നെ വാർത്തകളിലും ഫോണിലായാലും എല്ലാം മലയാളമാക്കാനുള്ള സംവിധാനങ്ങൾ വേണം അതുകൊണ്ട് മലയാളഭാഷ തന്നെ കൂടുതലും വേണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെതന്നെ നമ്മൾ സ്ക്കൂളിലൊക്കെ ഇംഗ്ലീഷിൻ്റെ അർത്ഥം കൂട്ടുകാരോട് പറയുമ്പോൾ അതിൻ്റെ മലയാളമായിട്ട് ഒരു പേജ് തന്നെ ഉണ്ടെങ്കിൽ നല്ലതാണ് മലയാളമാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വച്ചാൽ എല്ലാ ഭാഷയും വേണം പക്ഷെ മലയാളം വേണം കൂടുതൽ പേർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാളമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കൂടുതൽ പേർക്ക് മനസ്സിലാവാനും അറിയാൻ വേണ്ടിയിട്ടാണ് മലയാള ഭാഷ വേണം എന്ന് പറയുന്നത്